മലയാള ഭാഷ എന്നത് മലയാളികൾക്ക് ഭാഷ മാത്രമല്ല അതവരുടെ സംസ്കാരം കൂടിയാണ് ഏതൊരു രാജ്യത്ത് പോയാലും ഒരു മലയാളിയെങ്കിലും അവിടെ കാണാം എന്നാൽ അവരവരുടെ ഓരോ രാജ്യത്ത് പോയാലും അവരുടെ മലയാള ഭാഷ അല്ലെങ്കിൽ അവരുടെ സംസ്കാരത്തെ വിട്ട് കളയുന്നില്ല അവർ അവരുടേതായ സംസ്കാരത്തിനാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അവർ അവിടെ പോയാലും നമ്മളിപ്പോൾ എവിടെ പോയാലും മലയാളികളുടെ ഒരു സംസ്കാരവും മലയാലാലി മലയാളികളുടെ കലകളും അതുപോലെ ഒരുപാട് മലയാളികളുടെ വസ്ത്രധാരണയും അതുപോലെ അതുപോലെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇഷ്ടപെടുന്ന അല്ലെങ്കിൽ അതിൽ അത് പിന്നെ അവരുടെ ജീവിതത്തിൽ വരുത്തണമെന്ന് ഒരുപാട് മറ്റു രാജ്യക്കാരും ഇപ്പോൾ സായിപ്പ് മദാമ്മ അതുപോലുള്ള ആൾക്കാർ ഇംഗ്ലീഷുകാരൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ബാ ഒരു ഭാഷയും അതുപോലെ ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് മലയാള ബാശയും അതുപോലെ മലയാളികളുടെ സംസ്കാരവുമൊക്കെ രവും എല്ലാം തന്നെ അപ്പോൾ മലയാളിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് വേറിട്ട നിൽക്കുന്ന ഒന്ന് തന്നെയാണ് ഇപ്പോൾ മലയാളികൾക്ക് നമ്മുടെ മുതിർന്ന ആൾക്കാരോടുള്ള ബഹുമാനം അതുപ്പോലെ ബസ്സിലാണെങ്കിലും നമ്മുടെ നമ്മുടെ എല്ലാവരും കൂടുന്ന അല്ലെങ്കിൽ നമ്മുടെ ചെറിയവരും വലിയവരും ഒത്തുകൂടുന്ന സ്ഥലങ്ങളിൽ മറ്റുള്ളവരുടെ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതും അതുപ്പോലെ ചെറിയവർക്ക് വലിയവർ നൽകുന്ന ഒരു സ്ഥാനവും ചെ അതുപോലെ വലിയവരെ അല്ലെങ്കിൽ മുതിർന്ന വയസ്സായ ആൾക്കാരെ വാർദ്ധക്യം ഉള്ള ആൾക്കാരെ അവരോടുള്ള പെരുമാറ്റവും അതൊക്കെ മറ്റു രാജ്യത്തിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ് മലയാളികളുടെ ഭാഷയും അതുപോലെ അവരുടെ സംസ്കാരവും അത് നമ്മളെ എങ്ങനെയൊക്കെ സ്വാധീനിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളി എന്നത് മലയാള ഭാഷയും അതുപോലെ എവിടെ ചെന്നാലും മലയാളത്തിൽ സംസാരിക്കണം അതുപോലെ ഇപ്പോൾ നമ്മുടെ ഭാഷ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ വരുന്ന ഒരുപാട് അന്യ സംസ്ഥാനത്തുള്ള ആൾക്കാരുണ്ട് അപ്പോൾ നമുക്കിടയിൽപ്പോലും ഒരുപാട് അന്യസംസ്ഥാനത്തിലുള്ള ആൾക്കാർ മലയാളം പഠിക്കാൻ അല്ലെങ്കിൽ മലയാള മലയാളത്തിലെ കലകൾ പഠിക്കാനായിട്ടും വരുന്നുണ്ട്